ഹലോ ഹലോ ഇത് ഹൈട്ടെക് ഐറ്റെക് നേഴ്സറി പറഞ്ഞോളൂ ഇത് മൂവാറ്റുപുഴ മ്മ് ഓക്കെ ഓക്കെ എന്ത് പ്ലാന്റ്സാണ് വേണ്ടത് എങ്ങനത്തെ പ്ലാന്റ്സാണ് എങ്ങനെത്തെ ടൈപ്പാണ് വേണ്ടത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ മോഡലാണു വേണ്ടത് അതിന് അതിന് വെറൈറ്റി കളേഴ്സാ ആ ഉണ്ടുണ്ടുണ്ട് അതിന്റെ റെഡും ബ്ലൂവും കൂടെ വരുന്നതുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ രണ്ടുമൂന്ന് കോമ്പിനേഷന് വരുന്നുണ്ട് നമ്മളുടെയടുത്ത് അത് അതു പല ടൈപ്പുണ്ട് വലുതാവുന്നതുണ്ട് ഒരു ടൂ ഫീറ്റ് ത്രീ ഫീറ്റിലൊക്കെ നിന്നിങ്ങനെ പന്തലിച്ചു പോവുന്നതുണ്ട് പിന്നെ നല്ലവണ്ണം വലുതായി പോവുന്നതുണ്ട് അങ്ങനത്തെ പല ടൈപ്പുണ്ടത് അതു രണ്ടും ഉണ്ട് കൊറിയറും ഉണ്ട് കൊറിയര് സര്വീസുമുണ്ട് നമ്മള്ക്ക് അല്ലാണ്ട് നേരിട്ടു വന്നെടുക്കണമെങ്കില് നേരിട്ടു വന്നെടുക്കുകയും ചെയ്യാം കൊറിയര് സര്വീസാവുമ്പോള് കൊറിയര് ചാര്ജുണ്ടതിന് ഷിപ്പിങ്ങിന് ഒരു പ്ലാന്റിനിത്ര വച്ചുണ്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് വച്ചുണ്ടാവും അല്ലാണ്ട് നിങ്ങള് വന്നെടുക്കുകയാണെങ്കില് വരത്തില്ല അല്ലാണ്ടൊരു പ്ലാന്റിനു വരുന്നതെന്നു പറയുമ്പോള് ഒരു പ്ലാന്റിന് ഇരുനൂറ്റിപ്പത്ത് രൂപ അല്ലെങ്കില് ഇരുന്നൂറ്റിഇരുപതു രൂപ ആ റേറ്റിലാണ് വരുന്നത് അതിന്റെ കളേഴ്സിന്റെയും ടൈപ്പും അനുസരിച്ചു വ്യത്യാസം വരും അതു നിങ്ങള് ബള്ക്കായിട്ടെടുക്കാനാണെങ്കില് നമ്മള് ചില അഡ്ജസ്റ്റൊക്കെ ചെയ്തു തരുമത് ഏ മനസിലായില്ല മനസിലായില്ല എവിടെനിന്നാണ് നമ്മളെടുക്കുന്നതു നമ്മളിവിടെ തന്നെ കള്ട്ടിവേറ്റെയ്യ്ന്നതാണ് ആ ഓക്കെ ഓക്കെ ചെയ്യാം ചെയ്യാം അത് നോക്കി ചെയ്യാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അതു ഞാന് നോക്കിയിട്ടു ചെയ്യാം ആ ഓക്കെ ഓക്കെ ചെയ്യാം ചെയ്യാം ചെയ്തുതരാം സാര് ആ ഓക്കെ ആ